വീഡിയോ ഗെയിമുകളെ കുറിച്ച് പറയുവാനാണെങ്കില് കൂടുതൽ എനിക്ക് അറിയുന്നത് എന്നു വച്ചാൽ ലുഡോയാണ് ലുഡോ ഗെയിമാണ് ഞാന് കളിച്ചിട്ടൂള്ളത് കളിക്കുക കളിക്കുന്നതൊക്കെ അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എനിക്ക് അതിനോട് ഭയങ്കരം ഇഷ്ടമാണ് കാരണമെന്ന് വച്ചാൽ കുറച്ച് ബുദ്ധിപരമായിട്ട് കളിക്കേണ്ടതാണ് ലുഡോ എന്ന് പറയുന്നത് നമ്മള് ഏത് കാര്യം നീക്കിയാൽ ആണ് മറ്റുള്ളവ്രെ ക്യാച്ച് ചെയ്യാന് പറ്റുക അങ്ങനെയൊക്കെ നോക്കുന്ന നമുക്ക് ലുഡോ കളിക്കുമ്പോഴാണ് ഇതിനകത്ത് കളിക്കുമ്പോഴാണെങ്കിൽ കുറച്ച് ബുദ്ധി വച്ചിട്ടുള്ള ഒരു ഇതായത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ അതുപോലെ തന്നെ സബ്ബി സഫ്ഫന്സ് എന്ന് പറഞ്ഞിട്ട് ആ ഗെയിമാണെങ്കിൽ നമ്മൾ ചുമ്മാ ടൈം പാസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ബബിൾ ഷൂട്ടര് അതും ഇതുപോലെ തന്നെ ബുദ്ധി വച്ചിട്ട് നമ്മളൾ എവിടെ ഏത് വശത്തേക്ക് കൊള്ളിച്ചാലാണ് പോരുക അതും ഒരു ചെറുതായിട്ട് ബുദ്ധി വച്ചിട്ട് ക്യൂബ്സ് സെറ്റാക്കല് ആ ക്യൂബുകളെന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏത് ഷേയ്പ്പിൽ എവിടെക്കൊണ്ട് വച്ചാലാണത് കറക്റ്റ് പോഷന് നമുക്ക് കിട്ടുക എന്നുള്ളത് ഇതൊക്കെയാണ് ഞാന് കളിക്കാറുള്ള ഗെയിമ് എനിക്ക് അറിയുന്നതും അതുപോലെ തന്നെ വീഡിയോ ഗെയിമുകളെ കുറിച്ച് പറയുവാനാണെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു തലമുറയെന്ന് വച്ച് നോക്കുക ആണെങ്കിൽ പിള്ളേരൊക്കെ അതിന് നല്ല പോലെ അഡിക്ട്റ്റ് ആണ് വീഡിയോ ഗേയ്മുകള്ക്ക് ഈ പുതിയ തലമുറ നല്ല പോലെ അഡിക്റ്റാണ് ഇപ്പം എവിടെ നോക്കിയാലും ഈ ഗെമുകൾ മാത്രമെയുള്ളു ആദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം മൊത്തം ഇതായത്തിന് ശേഷം ഇപ്പം മൊത്തം ഗെയ്മുകളും അതും ഇതൊക്കെയായിട്ട് ആണ് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടെ റ്റഫ്ഫ് ആന്ഡ് മെൻ്റലായിട്ട് ഉപയോഗിക്കാന് പറ്റുന്ന ഗെയ്മ്സിനെ കുറിച്ചിട്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം ഇതാകുമ്പം നമ്മൾ കുറച്ച് ചിന്തിച്ചും തലച്ചോറ് വര്ദ്ധിപ്പിച്ചിട്ട് കളിപ്പി കളിക്കുക ചുമ്മാ ഇങ്ങനെ ഇരുന്ന് വെറുതേ ഇരുന്ന് ടൈം പാസ് ചെയ്യുന്ന ഗെയിമ്നോട് വലിയ താല്പര്യം ഇല്ല